അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ടൻസ്കളുണ്ട് എന്തെന്ന് വച്ചിട്ടുണ്ടേൽ ഇപ്പം നമ്മുടെ ഇപ്പം എക്സാമ്പിളെടുക്കാണേൽ ഇപ്പം ഇടുക്കി അപ്പം ഞാൻ താമസിക്കുന്ന ഇടുക്കി ജില്ല ഞാൻ ഇപ്പം ഇടുക്കി ജില്ല താമസിക്കുന്ന ഒരു സ്വദേശിയാണ് അപ്പം ഇവിടെ ഉള്ള ഹൈ റേഞ്ച് മേഖലകളുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഏറെ ഇപ്പം തൊണ്ണൂറ് ശതമാനം എടുത്തിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം ഉള്ള ആൾക്കാരും കർഷകരാണ് അപ്പം കർഷകർ അപ്പം അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അപ്പം പ്രശ്നങ്ങൾ അവസ്ഥ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖികരിക്കുന്നു എന്ന് വെച്ചാൽ പല രീതിയിലാണ് അപ്പം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പലർ പലരുടേം കാര്യങ്ങളിലേക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്ക് ഒന്നും എത്തുന്നില്ല അപ്പം പ്രധാനമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പം ഈ മാധ്യമങ്ങൾ അതായത് ഇപ്പം ഒരു ദിവസത്തെ ഡെയ്ലി ന്യൂസെടുത്ത് നോക്കുക ആണെങ്കിൽ എത്ര ശതമാനത്തോളം അപ്പം ഇതിപ്പം രാഷ്ട്രീയപരമായിട്ടും കായികപരമായിട്ടുള്ള വാർത്തകൾ പറയുന്നത് പോലെ എത്ര ശതമാനത്തോളം വാർത്തകൾ ഇപ്പം നൂറ് ശതമാനം എടുത്താൽ അതിൽ എത്ര ശതമാനത്തോളം വാർത്തകൾ ഒരു ദിവസം കർഷകരുടെ അവസ്ഥയെക്കുറിച്ച് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കണ്ടത് അത് വച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ അക്കാര്യത്തിൽ വളരെ ഏറെ പ്രൗഡാണ് കാരണം ഇപ്പം നമ്മുടെ ഈ ഇന്ത്യയുടെ കേരളത്തിൻ്റെ തന്നെ നട്ടൽ എന്ന് പറയുന്ന കർഷകരാണ് അപ്പോൾ ഈ കർഷകർ ഇപ്പം മലയോര കർഷകർ ഇപ്പം ഹൈ റേഞ്ച് ഭാഗങ്ങളിലുള്ള കർഷകരാണെപ്പോലും അവർ അഭിമുഖരിക്കുന്നതും നേരിടുന്ന പ്രശ്നങ്ങൾ ഒത്തിരി ഏറേ ഉണ്ട് അത് വെച്ച് നോക്കെയാണെങ്കിൽ ഇത് ഇപ്പം പല രീതിയിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പം എക്സാമ്പിൾ പറയാണെങ്കിൽ ഇപ്പം ഒരു എന്താണ് ഇപ്പം അങ്ങനെ പറയാണെങ്കിൽ അതിപ്പം ഇപ്പം ഒരു കർഷകൻ അദ്ദേഹം ഇപ്പം എക്സാമ്പിളിപ്പം ഒരു പറമ്പിൽ ഇപ്പം ഒരു കപ്പ അങ്ങനുള്ള വിളകൾ ഇപ്പം നട്ടു പിടിപ്പിക്കുന്നു അപ്പം ഈ വന്യമൃഗങ്ങളുടെ ശല്യം മെയിനായിട്ട് ഈ ഒരു ഭാഗത്തുള്ള കർഷകർ ഇപ്പം മലയോര ഭാഗത്തുള്ള ഹൈ റേഞ്ച് ഭാഗത്തുള്ള കർഷകർ ഇത് നോക്കുവാണെങ്കിൽ അവർ മെയിനായിട്ട് അഭിമുഖരിക്കുന്ന പ്രശ്നമാണ് ഈ വന്യമൃഗങ്ങളുടെ ശല്യം അപ്പം വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഒത്തിരി ഏറെ നാശനഷ്ടങ്ങൾ ഇപ്പം ചിലർ അവരുടെ ചിലപ്പം ഭാവി അങ്ങനുള്ള കാര്യങ്ങളെ മുൻകൂട്ടിയായിരിക്കും അവർ ഇത് ഈ കൃഷി നടത്താൻ അങ്ങനുള്ള കാര്യങ്ങൾ ഒക്കെ മെയിനായിട്ട് ചെയ്യുന്ന അപ്പം അവർ കാഴ്ചവച്ചിട്ടുള്ള അതായത് അവരും മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതിലേക്ക് ഒന്നും എത്തിച്ചേരാനായിട്ട് ഇതുവരെ ആയിട്ടും എത്തിച്ചേരാൻ ആയിട്ടായിരിക്കും അവർ ഈ ഈ കൃഷി ഇങ്ങനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഇങ്ങനുള്ള വന്യജീവികൾ അങ്ങനുള്ള മൃഗങ്ങളുടെ ഈ നാശം ഈ നാശം അതായത് ഇവരുടെ ഈ പ്രവർത്തികൾ കാരണം അവർക്ക് നഷ്ടം ഒത്തിരിയേറെ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് അവരുടെ കൃഷി എന്ന് വച്ച് അവരുടെ സ്വപ്നങ്ങൾ അവർ മുൻകൂട്ടി ഇരിക്കുന്ന സാമ്പത്തിക സ്ഥിതി എല്ലാം അതിനെ അഫെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഈ വാർത്ത മാധ്യമങ്ങളിൽ വന്യമൃഗ ശല്യം ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ രീതിയിൽ അത് അഫക്ട് ചെയ്യുന്നു എന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ അതിനെ പ്രധാനമായിട്ടും മുൻനിർത്തി കാണിക്കുന്നില്ല ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്ന് പറയുവാണെങ്കിൽ ഈ കർഷകർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ നമ്മുടെ നാടിൻ്റെ തന്നെ നട്ടലായിട്ടാണ് മാറിയിരിക്കുന്നത് അപ്പം അവർ അഭിമുഖരിക്കുന്ന ഏത് പ്രശ്നങ്ങളും അത് നല്ല രീതിയിൽ പറ്റുന്ന രീതിയിൽ നിന്ന് എല്ലാ ദിവസവും ചർച്ച ചെയ്യാനും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുവാനും നമ്മുടെ ഗവൺമെൻറ്റും അങ്ങനുള്ള കാര്യങ്ങളും സഹായിക്കണം അപ്പം അതായത് വാർത്താ മാധ്യമങ്ങൾ ഇങ്ങനുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട് മെയിനായിട്ട് നമ്മൾ സഹായിക്കുന്ന വാർത്താ മാധ്യമം അപ്പം വാർത്താ മാധ്യമങ്ങളിലൂടെ ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതാണ് മെയിനായിട്ട് അപ്പം എൻ്റെ ഈ പ്രദേശത്തിൽ എന്ന് വച്ചാൽ വാർത്താമാധ്യമങ്ങൾ ഉണ്ടെങ്കിലും അത് കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ എത്തിക്കുന്നു പക്ഷേ എന്നാലും അത്ര നല്ല രീതിയിൽ അത് കർഷകരുടെ പ്രശ്നങ്ങൾ അഭിമുഖികരിച്ചതിനെ കുറിച്ച് പറയുന്നില്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് പറയാനുള്ളത്